എൻ്റെ ഗ്രാമംന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു ഗ്രാമമാണ് ഇപ്പം അങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുന്നിൻ ചെരിവിലുള്ള ഗ്രാമമാണ് ഉള്ളത് ഇവിടെ ഫുള്ളും മലകളാണ് എന്നാൽ എൻ്റെ വീട്ടിന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ തിരുനെല്ലി അമ്പലംക്കെ കാണാം ഇവിടുന്ന് മറ്റേ നമ്മ ഫുള്ള് കാട് നിറഞ്ഞിട്ട് അതിൻ്റെ ഇടക്ക് ഇങ്ങനെ അമ്പലം അമ്പലത്തിൻ്റെ ലൈറ്റും അമ്പലവും എല്ലാം കാ കാണാം നമുക്ക് പിന്നെ എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് കാടാണ് അപ്പം നല്ല മൃഗങ്ങൾ ആ ആന മയിൽ മാൻ അങ്ങനെ പല മൃഗങ്ങളെ നമുക്ക് ഇവിടെ കാണാം പിന്നെ എങ്ങനേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തണുപ്പ്ക്കാലംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും പിന്നെ മഴക്കാലത്ത് വലിയ കുഴപ്പമില്ല വെള്ളവും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ തോടുണ്ട് പുഴയിണ്ട് പുഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബനിപ്പുഴയാണ് ഇവിടെ ഇതിലെ ഉള്ളത് ഒഴുകുന്നത് പിന്നെ തിരുനെല്ലി അമ്പലത്തിൽ പക്ഷി പാതാളം അങ്ങനെ അതിലെ മേലോട്ട് നമുക്ക് കയറിപ്പോകാം നമ്മുടെ ബ്രഹ്മഗിരി മല അങ്ങനെ പല മലകളും ഉണ്ട് ഇവിടുന്നാണ് നമുക്ക് അടുത്താണ് മറ്റേ കർണ്ണാടക സ്റ്റേറ്റിലേക്ക് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട് ഇവിടെ തോൽപ്പട്ടി വഴി നമുക്ക് നമ്മുടെ ഇതിലൊക്കെ പോവാനും സാധിക്കുന്നുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഗ്രാമത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്